കോഴികൾക്ക് ഒരുപാട് രോഗങ്ങൾ വരാറുണ്ട് പക്ഷി പനി പിന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ നമുക്ക് വരുന്നത് പോലെ അവർക്കും വരും അതിനെ ഒക്കെ തരണം ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കും അവര് ഇങ്ങനെ എന്താ തൂങ്ങിയിരിക്കും അതിനൊക്കെ തരണം ചെയ്യുന്ന സാഹചര്യം എന്ന് വെച്ച് മഞ്ഞൾപ്പൊടി പഞ്ചസാരയും വെള്ളവും കലക്കിയിട്ട് അവർക്ക് മെല്ലെ മെല്ലെ ഇട്ടുകൊടുക്കുക മെല്ലെ മെല്ലെ വായില് ഒഴിച്ച് കൊടുക്കുക അപ്പം അങ്ങനെ ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ അവര് റെഡി ആവാ റെഡി ആവും പിന്നെ അതുപോലതന്നെ പനികളൊക്കെ വന്നിട്ടുണ്ടെങ്കില് നമ്മള് അതിനെ മൃഗാശുപത്രികളൊക്കെ ഇപ്പം ഉണ്ടല്ലോ ഡോക്ടർ മാരൊക്കെ അപ്പം അവിടെ പോയി നമ്മള് ഈ ഇന്ന കാര്യം കൊണ്ടാണ് കോഴികൾക്ക് സുഖമില്ലാണ്ടാവുന്നത് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അതിനനുസരിച്ചുള്ള മരുന്ന് തരും അതിന് അതിനനുസരിച്ച് നമുക്ക് മരുന്നുകളൊക്കെ കൊടുക്കാനാകും അപ്പം അങ്ങനെ ആരോഗ്യം ആരോഗ്യത്തോടെ നിലനിർത്താൻ സാധിക്കും നമ്മുടെ ഇവിടെ ആണെങ്കിലും രണ്ട് മൂന്ന് കോഴികളുണ്ടായിരുന്നു ആദ്യം അപ്പം അവർക്ക് സുഖമില്ലാണ്ടായ സമയം നമ്മള് കൂടുതലും മഞ്ഞൾപ്പൊടി കലക്കി വായില് ഇങ്ങനെ മെല്ലെ മെല്ലെ ഒഴിച്ചുകൊടുക്കുകയാണ് ചെയ്യല് അപ്പം ഒരു അഞ്ചാറ് ദിവസം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് അതിൻ്റെ ആരോഗ്യം നില നിർത്താൻ ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയും കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ